പലപ്പോഴും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള താരങ്ങളായിട്ടുള്ളവരെ കുറിച്ച് അറിയുവാനായിട്ട് ജനങ്ങൾക്ക് വളരെ അധികം താല്പര്യമുണ്ട് അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ അവരുടെ സാധാരണ ജനങ്ങളുമായിട്ട് അവരുടെ ജീവിതരീതികളെ കംപയറ് ചെയ്യാനൊക്കെ ധാരാളം താല്പര്യം ജനങ്ങൾ കാണിക്കാറുണ്ട്

അറിയുന്നതിന് വേണ്ടി പലപ്പോഴും അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ അവർ എന്താണ് ചെയ്യുന്നത് അവർ എവിടെയാണ് അവർ ആരുടെ കൂടെയാണെ് എന്നൊക്കെ അറിയാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് പലപ്പോഴും അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അവരെ എന്താണ് ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംഷ ആയിരിക്കണം ഒരു തരത്തിൽ കുറേ എങ്കിലും ഇതിലേക്ക് നയിക്കുന്നത് അവരും സാധാരണക്കാരാണ് എന്നുള്ളത് പലപ്പോഴും ജനങ്ങൾ മറന്നു പോകുന്നു അവർക്കും സ്വകാര്യതയുണ്ട് അത് മാനിക്കപ്പെടേണ്ടതാണ് എന്ന് ആരും ചിന്തിക്കാറില്ല ടെലിവിഷൻ ചാനലുകൾ ആണെങ്കിൽ കൂടുതൽ റേറ്റിങ്ങ് കിട്ടുന്നതിനു വേണ്ടി പൊടിപ്പും തൊങ്ങലും വച്ചു സെലിബ്രറ്റി ആയിട്ടുള്ളവരെ വാർത്താ താരങ്ങളെ ഇടിച്ചു താക്കാൻ ശ്രമിക്കാറുണ്ട് അവർക്ക് കൂടുതൽ മനുഷ്യർ ഇത് കാണണം അതിന് വേണ്ടി ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കഥകൾ മെനഞ്ഞു അവർ കാണിക്കും കൂടുതൽ ഫോണിൽ ആണെങ്കിലും യുട്യൂബിൽ ആണെങ്കിലും കൂടുതൽ ലൈക് കിട്ടുന്നതിനു വേണ്ടി അവരുടെ ഫോട്ടോസാണ് അവരുടെ പ്രൈവറ്റായിട്ടുള്ള അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ അവരുടെ ഫോട്ടോകളാണെങ്കിലും അവരെ കുറിച്ചുള്ള വാർത്തകൾ ആണെങ്കിലും പുറത്ത് ജനങ്ങൾ ആകാംഷയോടെ ഇരിക്കുന്നത് കൊണ്ട് അത് പണസമ്പാദ്യത്തിന് വേണ്ടി പല വാർത്താ മാധ്യമങ്ങളും ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട് അവരും മനുഷ്യരാണെന്നുഉള്ള പരിഗണന കൊടുക്കാതെ ആണ് ഇത് ചെയ്യുന്നത് എന്തു തന്നെയാണ് എന്തു തന്നെയാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അവരോട് കൂടുതൽ മനുഷ്യത്വം കാണിക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് സത്യം അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ ചെയ്യുന്നതിനൊക്കെ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല സൈബർ ബുള്ളീയിങ്ങ് പോലുള്ള പല കാര്യങ്ങൾ ഈ ജനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അവരുടെ മനുഷ്യത്വത്തെ തന്നെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള പല രീതികളാണ് പല മാധ്യമങ്ങളും പല വാർത്താ ചാനലുകളും ചെയ്യുന്നത് പത്ര മാധ്യമങ്ങളിലൂടെ അവരെ കരിവാരി തേക്കുന്നത് ഒരു പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾക്ക് അവർക്ക് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അവരെ കൂടുതൽ ഇടിച്ചു താഴ്ത്തി അവരെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ കാണിക്കുന്നതിന് ശ്രമിക്കുന്നതായി തോന്നാറുണ്ട് അത് കൂടുതൽ ജനങ്ങൾ അത് കാണുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും ആണ് അതിനൊരു പ്രോൽസാഹനമായി കാണുന്നത് ജനങ്ങൾ കുറച്ചു കൂടി ഈ സെലിബ്രിറ്റി ആയിട്ടുള്ളവരുടെ സ്വകാര്യതയെ മാനിച്ചെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ജനങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർക്ക് അത് കാണണ്ട എന്നൊന്നും വരുത്തിയിരുന്നെങ്കിൽ മാധ്യമങ്ങൾ ഇതിന് ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ വാർത്താ താരങ്ങളായിട്ടുള്ളവരും അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം ഇതുപോലെ സിനിമയിലേക്കോ അല്ലെങ്കില് മറ്റു രീതിയിലോ ധാരാളം ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും അവർ കാണപ്പെടുന്നവരാകുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ എങ്കിലും അവർക്ക് ഒരു ദൈവ പ്രതീതി കൊടുത്ത് അവരെ കണ്ണടച്ചു ആരാധിക്കുന്ന ഒരു അവസരം വരുന്നുണ്ട് അപ്പം അവരിൽ മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിയുമ്പോൾ അത് ചാനലുകൾ ആഘോഷിക്കുന്നതായിട്ടും കൂടുതൽ ജനങ്ങൾക്ക് അതിനോട് ആകാംഷ വരുത്തുന്നതിന് വേണ്ടി നുണ പരന്നു നുണകൾ പറഞ്ഞു പരത്തുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് വാർത്താ താരങ്ങളും ഇതിൻ്റെ മോശവശം കൂടുതലും ചിന്തിക്കേണ്ടതാണ് ഒരുപാട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു സെലിബ്രിറ്റി ആയിട്ട് വരുന്നതിന് മുമ്പ് അതിൻ്റെ മറ്റേ സൈഡും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും